ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള പ്രധാന സാംസ്കാരിക വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഷയിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളിവിടെ മലയാളം അങ്ങനത്തെയൊക്കെയാണ് പറയുക പക്ഷേ അവിടെ ദൂരെ അവിടെ അതായത് ഉത്തരേന്ത്യയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹിന്ദി മറാട്ടി ഉറുദു അങ്ങനെയുള്ളത് അങ്ങനെയുള്ള ഭാഷകളൊക്കെയാണ് സംസാരിക്കുക പിന്നെ വസ്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതായത് അവർ ഇവിടെയുള്ള ഇപ്പ ആദിവാസികളൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ സാരി തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുക സാരി പാവാട ഷർട്ട് അങ്ങനത്തെ ഒക്കെയാണ് ഉപയോഗിക്കുക നമ്മുടെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരിദാർ സാരി പാവാടയും ബ്ലൗസും ജീൻസും ടോപ്പും അങ്ങനെ എല്ലാ തരം വസ്ത്രങ്ങളും ഉപയോഗിക്കും പിന്നെ ഭക്ഷണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരിക്കും കൂടുതലും ഗോതമ്പിൻ്റെ ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറില്ലാണ്ട് നമുക്ക് പറ്റില്ല ചോറ് കാര്യങ്ങളൊക്കെ വേണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷരത അതായത് അവിടെയൊക്കെ കുട്ടികൾ അതായത് സാക്ഷരത വളരെ കൂടുതലാണ് രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മുടെ ഇവിടെ പോലെയൊന്നും രാഷ്ട്രീയം അങ്ങനത്തെ ഒന്നും ഒന്നുമില്ല പിന്നെ കാലാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം മഴ വെയിലൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും ചൂട് അങ്ങനെ ഒരു കാലാവസ്ഥയായിരിക്കും അതായത് ഒരുമാതിരി കാലാവസ്ഥ ആയിരിക്കും നമുക്കിവിടെത്തന്നെയാണ് സുഖം